ആ അതെയതെ എങ്ങനെ ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണോ ബുക്കിങ്ങിന് ആ എന്തായിരുന്നു പേരെന്തായിരുന്നു ശ്രേയ ഓക്കെ എവിടെയാണ് സ്ഥലം എവിടെയാണ്

ആ കോഴിക്കോട്ടേക്ക് വേണ്ടിയിട്ടാണല്ലേ പാക്കേജിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ ഓക്കെ എന്നത്തേക്കായിരുന്നു നോക്കുന്നത് ഡേറ്റ് എന്നത്തേക്കായിരുന്നു ഇരുപത്തി മൂന്നാം തീയതിയിലേക്കാണ് പാക്കേജ് നോക്കുന്നതല്ലേ ഓക്കെ ഫുൾ ഡേ പാക്കേജ് ആണോ നോക്കുന്നത് എത്ര ദിവസത്തേക്കുള്ള പാക്കേജ് ആണ് നോക്കുന്നത് ഇപ്പം നിലവിൽ രണ്ടു മൂന്ന് ദിവസത്തേക്കാണല്ലേ ഓക്കെ കോഴിക്കോട് മാത്രം എവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പ്ലാനിംഗ് അതോ വേറെ എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ പോവാൻ ട്രാവൽ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ആ അങ്ങനെ ഹിൽ സ്റ്റേഷനൊക്കെയാണ് നോക്കുന്നത് അല്ലേ ആ അങ്ങനെ ഹിൽ സ്റ്റേഷനിൽ തന്നെ റൂമ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കപ്പോൾ ആ അങ്ങനത്തെ പാക്കേജ് ആണോ നോക്കുന്നത് മൊത്തത്തിലുള്ള പാക്കേജ് ആണോ നോക്കുന്നത് ആ ആ മ് മൊത്തത്തിൽ എത്ര പേരാണ് വരുന്നത് എട്ട് എട്ടു പേരു വരുന്നുണ്ട് അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വണ്ടി നമ്മുടെ വന്നിട്ട് ഇപ്പം അവിടുന്നു വന്നിട്ട് കോഴിക്കോട് നിന്നാണോ പിക്ക് അപ്പ് ചെയ്യേണ്ടത് ആ ഒക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കോഴിക്കോടിൽ നിന്ന് പിക്ക് ചെയ്യുന്നതാണ് പിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തുതരാം ഫുൾ ഡേ നമുക്ക് ഗൈഡ് പോലെ ആൾക്കാരെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അതായത് ഇപ്പം എല്ലാ സ്ഥലങ്ങളും കൊണ്ടു പോകാൻ വേണ്ടിയൊരു ഡ്രൈവർ വിത്ത് വണ്ടി ആവശ്യം എന്തായാലും വരുന്നില്ലേ നിങ്ങൾക്ക്

ആ ഒക്കെ ഓക്കെ നമുക്ക് ഇവിടെ കുറേ ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കോഴിക്കോടിൻ്റെ കുറേ ഭാഗങ്ങളിൽ കുറേ ഹിൽ സ്റ്റേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബീച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കുറേ കാണാനുള്ള കുറേ സ്ഥലങ്ങൾ വരുന്നുണ്ട് ഓരോ സെക്ഷൻ ആയിട്ടാണ് നമുക്ക് വരുന്നത് അതെല്ലാ കാര്യങ്ങളും ഇവിടെനിന്ന് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തുതരും ഏതൊക്കെ സ്ഥലങ്ങളാണ് വരുന്നത് ഡെസ്റ്റിനേഷൻ കാര്യങ്ങൾ എങ്ങേനെയാണ് വരുന്നതെന്ന് എന്നുള്ളതിൻ്റെ ഒരു മാപ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുതരാം ഏതൊക്കെ സ്പോട്ട് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് ദിവസത്തേക്കുള്ള പാക്കേജ് അല്ലേ നമ്മളിപ്പം നോക്കുന്നത് ആ ഓക്കെ നമ്മളപ്പോൾ എങ്ങനെയാണ് പാക്കേജ് കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരാം അതായത് ഇപ്പം നമുക്കിവിടെ വരുന്ന സ്ഥലങ്ങൾ കാര്യങ്ങൾ പിന്നെ നമ്മുടെ സ്റ്റേയിങ്ങിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിൻ്റെ ലിസ്റ്റും നമ്മളയച്ച് തരാം അത് ഓരോ സ്റ്റേ കാറ്റഗറി വെച്ച് ബേസിലായിരിക്കും നമ്മൾ അയച്ചുതരുന്നത് അതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം പിന്നെ മെനു കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുത്തെ ഇതിനനുസരിച്ചായിരിക്കും പ്രോപ്പർട്ടിനെ അനുസരിച്ചായിരിക്കും മെനു കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് സപ്പറേറ്റ് ഓർഡർ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം അപ്പം റേറ്റിൽ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും കേട്ടോ ആ നമുക്കത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എട്ടുപേരുള്ളതാണല്ലേ അപ്പം അവർ അതിനുള്ള രീതിയിലവർ ചെയ്തുതരുന്ന പ്രോപ്പർട്ടി കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ മൊത്തത്തിൽ ചെയ്തുതരാൻ പറ്റുന്നതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തുതരാൻ പറ്റുന്നതാണ് പാക്കേജ് കാര്യങ്ങൾ ഫണ്ടിൻ്റെ ഒരു ഇതുമാത്രമാണ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഫണ്ട് ഇപ്പം റേറ്റ് ഒരു ഇഷ്യൂ എന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചു ചെയ്തുതരാൻ പറ്റുന്നതാണ് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ബെസ്റ്റ് രീതിയിൽ തന്നെ നമുക്ക് ചെയ്തുതരാൻ പറ്റും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ വരുന്ന പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റാർ കാറ്റഗറീസ് കാര്യങ്ങൾ വരുന്ന റൂംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി കാര്യങ്ങൾ ആണെങ്കിലും അതിനനുസരിച്ച് ഫെസിലിറ്റീസ് കാര്യങ്ങൾ വരുന്ന വണ്ടി കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വരുന്ന ഞമ്മൾ ഞങ്ങളിപ്പോൾ ഈ മാമിൻ്റെ ഈ നമ്പറിൽ വാട്സ്ആപ്പ് കാര്യങ്ങൾ വരുന്നതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനുളളില്ലേക്ക് ഫോട്ടോസ് കാര്യങ്ങളും അയച്ചുതരാം അതിലേക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചുതരാം നിങ്ങളിപ്പോൾ മാം പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത് പിന്നെ നമ്മുടെ ഹോട്ടൽസിൻ്റെയും സ്പോട്ടിൻ്റെയുമൊക്കെ ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചുതരാം അപ്പോൾ മാം അതൊക്കെയൊന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാമൊന്ന് ഇതാക്കിയിട്ട് ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്ത് പറഞ്ഞുതന്നാൽ മതി പിന്നെ എന്നത്തേക്കാണ് വരുന്നത് എന്നുള്ളത് ഡേറ്റും കാര്യങ്ങളുമൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് പേയ്മെന്റ് കൂടി ചെയ്താൽ മതി അതിപ്പോൾ നിങ്ങൾ എത്ര ചെയ്താലും കുഴപ്പമില്ല ഒരു ഇനിഷ്യൽ എമൗണ്ട് ആയിട്ട് നമുക്ക് ബുക്കിങ്ങിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് ആണ് ഒരു രണ്ടായിരത്തിൽ കുറയാണ്ട് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്കൊരു കൺഫ് ആ നമുക്ക് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് തരുമ്പോൾ ഇത് അയച്ചുതരാം ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ